എൻ്റെ വീട് പുഴയുടെ അടുത്തായിട്ടാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്നും വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് പുഴയിൽ നീന്തി മത്സരിക്കും ഏറ്റവും കൂടുതൽ അധികം മുങ്ങി ഇരിക്കും വെള്ളത്തിനടിയിൽ മുങ്ങി ഇരിക്കുന്ന ആൾക്കാർക്കാണ് അന്നത്തെ വൈകുന്നേരം മിഠായി വാങ്ങാനുള്ള പൈസ കിട്ടുന്നത് അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ കുളത്തിൽ പോയിട്ട് നീന്താൻ എല്ലാവരും എല്ലാം ഓക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നാലുപേർ അടങ്ങുന്ന ഞങ്ങളുടെ സംഘം എല്ലാവരും കൂടെ ചാടി വെള്ളത്തിൽ ചാടിയിട്ട് അതിനകത്ത് അഞ്ച് മിനിറ്റ് ഓളം എന്ത് ചെയ്യണം ശ്വാസം പിടിച്ച് ഉള്ളിലൂടെ പുറമെയല്ല ഉള്ളിലൂടെ നീന്തിയിട്ട് അപ്പുറത്തെ സൈഡിലെത്തണം അങ്ങനെ അത് വലിയ പുഴയാന്ന് പറഞ്ഞല്ലോ വലിയ അപ്പം ആ അക്കരെ നിന്ന് ഇക്കരെ നിന്ന് അക്കരയിലേക്ക് മുങ്ങാൻകുഴി ഇട്ട് നീന്തുക എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും അങ്ങനെ നീന്തി അപ്പുറം സൈഡിൽ എത്തണം ഞങ്ങളൊരു നാല് പേരാണ് എന്നാൽ ഒരു ഒരാൾക്ക് വലിയ നീന്തൽ പരിചയം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നിരുന്നാൽ കൂടിയും അവളും നീന്താനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേർ വെള്ളത്തിൻ്റെ അടിയിലൂടെ നീന്തി നീന്തി എത്തിയപ്പോൾ ഒരാൾ മാത്രം നടുക്കിലെത്തിയപ്പോൾ ഒരാളെ മാത്രം കാണുന്നില്ല ഞങ്ങൾ അവസാനം അത് അവിടെ എത്തിയപ്പോൾ ആളെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവളെ മാത്രം അങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊരു കുഴി ഉണ്ടായിരുന്നു അപ്പം നീന്താൻ അറിയാത്ത വ്യക്തികൾക്ക് ഈ കുഴി വരുമ്പോഴും അടിയിലൂടെ കൂടെ നീന്തും ചെയ്യുമ്പോത്തിന് കാല് തടഞ്ഞ് ആ കുഴിയിനകത്ത് അവളുടെ കാല് കുടുങ്ങിപ്പോയി അങ്ങനെ കുടുങ്ങിയപ്പോൾ ആകെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി മൂക്കിലോട്ട് വെള്ളം കയറി ഞങ്ങൾക്ക് സന്തോഷത്തിലേക്കാൾ ഉപരി ഞങ്ങൾ വളരെയധികം അപ്പോൾ പേടിച്ചുപോയി കാരണം ഞങ്ങൾ നാല് കൊച്ചു മക്കൾ മാത്രമേ ഉള്ളൂ കൂടെ ഉണ്ടായിരുന്ന വലിയ വ്യക്തികൾ ആരുംതന്നെ കൂടെയില്ല അത് തന്നെ ഒരു ആ വീണത് ഒരു പെൺകുട്ടി കൂടിയാണ് ഞങ്ങൾ അക്കരെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെയും നീന്തി അവളെ അടുത്തേക്ക് വന്നിട്ട് അവളെ എടുത്ത് കൊണ്ടുപോയി കരയിൽ എത്തിയിട്ട് വായിലൂടെ ശ്വാസം കൊടുത്തു വയറൊക്കെ നന്നായിട്ട് വയറൊക്കെ നന്നായിട്ട് അമർത്തി കൊടുത്തു അങ്ങനെ വയറിലുള്ള വെള്ളം ഒക്കെ പുറത്ത് കളഞ്ഞപ്പം ആൾ ശരിയായി ഞങ്ങൾ വളരെയധികം പേടിച്ചിരുന്നാൽ കൂടിയും ഒരു ഒരു ഒരു നിമിഷത്തേക്ക് ഞങ്ങളാകെ പകച്ചുപോയി കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നീന്താനറി അറിയാം എന്നിരുന്നാൽ കൂടി ഇങ്ങനെ നന്നായിട്ട് നീന്താനറിയാത്തൊരു ആളെയുംകൊണ്ട് നീന്തിച്ചപ്പോൾ എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ ഒന്ന് പേടിച്ച് ഭയങ്കര ഭയങ്കര പേടിച്ച് നിൽക്കുമ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ അതിൽനിന്ന് രക്ഷപ്പെട്ടു നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ ശരീരത്തിന് വളരെയധികം ഉന്മേഷം നൽകുന്ന ഒരു പ്രവർത്തി കൂടിയാണ് നീന്തൽ എന്ന് പറയുന്നത് അന്ന് അതിന് ശേഷം ആ ആ പെൺകുട്ടിക്ക് ഞങ്ങളുടെ കൂടെ നീന്താൻ നീന്തൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു പേടി തുടങ്ങിയാൽ പിന്നീട് പിന്നെയും അവളെ വെള്ളത്തിലിറ വെള്ളത്തിലിറക്കിയിട്ട് നീന്താൻ പഠിച്ചപ്പോൾ ഇപ്പം ഞങ്ങളെക്കാട്ടിയും നന്നായിട്ട് നീന്താൻ അവൾക്കറിയാം ഒരു നിമിഷം നമ്മൾ പേടിച്ചിട്ട് പിന്മാറി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ പേടി നമ്മളുടെ കൂടെ തന്നെ എപ്പോഴു ഉണ്ടാവും എന്നാൽ പേടിയെ മറികിടന്ന് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആ ജീവിതത്തിൽ പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും